ചെടികളും മരങ്ങളും അവയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ നമ്മൾക്ക് അതു കാണുമ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ശരിക്കും പൂക്കളക്കെ പൂവ് പൂത്ത് നിൽക്കുക അല്ലേ കുറെ പൂക്കളിങ്ങനെ കാണുക അപ്പം തന്നെ നമുക്ക് ശരിക്കും മനസ്സിന് സന്തോഷവാണ് പണ്ടൊക്കേന്ന് പറഞ്ഞാൽ ചെടികളെന്താണ് ഇപ്പം ഒരു ചെടി നട്ടു അത് നമ്മളതുപോലെ ശ്രദ്ധിച്ച് കുറെ നാളെടുക്കും അത് ഒന്ന് പൂവാകാൻ ഇപ്പം പിന്നെ എല്ലാം ഹൈബ്രിഡ് ആയത്കൊണ്ട് ചെടികളൊക്കെ വേഗന്ന് അങ്ങ് പൂക്കും വേഗന്ന് കായ്ക്കും അങ്ങനെയൊക്കെയുണ്ട് ഇപ്പം ദേ പ്ലാവക്കെ രണ്ട് വർഷം ഒരു വർഷം മൂന്ന് വർഷമൊക്കെ കൊണ്ട് നമുക്ക് ചക്ക പറിക്കാം അല്ലെങ്കിൽ മാങ്ങ പറിക്കാം അങ്ങനൊക്കെ ആയി പണ്ടൊക്കെ അങ്ങനെ അല്ലല്ലോ പണ്ടക്കെ ഒരു പ്ലാവ് നട്ടാൽ കുറെ വർഷം എടുക്കും അതിൽ ചക്കയുണ്ടാകാൻ അല്ലേ മാങ്ങ ഉണ്ടാവാൻ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പറമ്പിൽ നമ്മുടെ മുറ്റത്ത് നമ്മുടെ സ്ഥലത്ത് ഒരു മരം നിൽക്കുക അതിൽ നിന്നൊരു പഴം പറിച്ചെടുക്ക അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് നിന്നൊരു പൂവ് പറിക്കുക അതൊക്കെ ശരിക്കും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം അതിലക്കെ ഇങ്ങനെ മഞ്ഞും വെള്ളമൊക്കെ ഇങ്ങനെ ചെടികളിലും പൂക്കളിലും ഒക്കെ അതൊക്കെ കാണുന്നത് ഭയങ്കര നമുക്ക് സന്തോഷം തോന്നും എൻ്റെ വീട്ടിലാണേ കുട്ടികളൊക്കെ അത് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടവാണ് ഈ മഞ്ഞ് ഇങ്ങനെ പൂവേ നിക്കുന്നതും അല്ലെങ്കിൽ മഞ്ഞും വെള്ളം ഇങ്ങനെ ചെടിയേലും ഈ ഇലയിലും ഒക്കെ നിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ അങ്ങനെ ഫോട്ടോ എടുക്കുന്നതൊന്നും ഇല്ല പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊന്നും പറ്റുകേല നമ്മളതിങ്ങനെ ഒന്ന് പോയി നോക്കി കണ്ട് അതൊക്കെ പറ്റുവുള്ളൂ ഇപ്പം പിന്നെ നമുക്ക് ഇതൊക്കെ എല്ലാം ഒരു വിരൽത്തുമ്പത്ത് ആയത് കൊണ്ട് ഫോട്ടോ എടുത്ത് വീണ്ടും കാണാം അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇപ്പം കുട്ടികൾക്കായാലും ആർക്കാണെങ്കിലും ചെടികളൊക്കെ നടാൻ നടാൻ ഭയങ്കര മടിയാണ് അത് മറ്റാരെങ്കിലും ചെയ്താലവർ അതൊക്കെ കണ്ടോളും അങ്ങനെ ഒരിതുണ്ട് പഴയ പണ്ടത്തെ ആ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയല്ല അവർക്കൊരു ചെടി എവിടുന്നെങ്കിലും കിട്ടിയാൽ അവരത് മുറ്റത്ത് കൊണ്ട് വന്ന് നടുന്നു വെള്ളം ഒഴിക്കുന്നു നിരന്തരം അത് നോക്കുന്നു അല്ലെങ്കിൽ അമ്മയോട് പറയുന്നു ഞാൻ കൊണ്ട് വന്ന ചെടിയാണ് എനിക്ക് എൻ്റെ സുഹൃത്ത് തന്ന ചെടിയാണ് എന്നൊക്കെ ഇപ്പം കുട്ടികൾക്ക് അതൊക്കെ കുറച്ച് മടിയാണ് അപൂർവ്വം കുട്ടികളെ ഉള്ളൂ അങ്ങനെ ചെടിയൊക്കെ കൊണ്ടുപോയി നടുന്നതക്കെ അത് ശരിക്കും പക്ഷേ നല്ല ഒരു സ്വഭാവമാണോ കുട്ടികൾക്കങ്ങനെ ഈ ചെടികളോടൊക്കെ ഒരിഷ്ടം അല്ലെങ്കിൽ മരത്തിനോട് അല്ലെങ്കിൽ പഴങ്ങളോട് അല്ലേ മരം നട്ട് പിടിപ്പിക്കുക അതൊക്കെ ശരിക്കും നല്ല ഒരു കാര്യമാണ് പക്ഷേ കുട്ടികളോട് നമ്മൾ പറഞ്ഞ് കൊടുത്താലും ചില കുട്ടികൾക്ക് അതിനോടൊരു താൽപ്പര്യമുണ്ട് എന്നാലും മിക്ക കുട്ടികൾക്കും അതൊക്കെ ഇപ്പം മടിയാണ് അത് എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്